വാർത്താ താരങ്ങളുവായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ സ്വകാര്യത തീരെ പരിഗണിക്കാത്തത് അവരെ എല്ലാവരും അറിയുന്നതുകൊണ്ട് അവരേക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയാണ് എല്ലാവർക്കും എത്രത്തോളം അറിഞ്ഞാലെ അവരോരോ ദിവസം എന്തു ചെയ്യുന്നു എന്ത് എവിടെപ്പോകുന്നു എങ്ങനെ ചെയ്യുന്നു ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ടുള്ള ഇന്നത്തെക്കാലത്ത് മാധ്യമങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് അതിൻ്റെ അകത്തെല്ലാം ഇട്ട് അതു തന്നെയല്ല ഓരോരുത്തർക്ക് ഇൻകം കിട്ടുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ഇന്നത്തെക്കാലത്ത് മാധ്യമങ്ങൾ അതുകൊണ്ട് അവർ എല്ലാവരും എവിടെയാണ് എങ്ങോട്ടു പോകുന്നു എവിടെ പോകുന്നു ഏറ്റവും ആദ്യം എങ്ങനെ വാർത്ത കൊടുക്കാം എന്നതാണ് അവരുടെ മനസ്സിലിരിക്കുന്നത് ഏറ്റവും ആദ്യം കൊടുത്താലല്ലേ അവർക്ക് റീച്ച് കൂടുതൽ കിട്ടുകയുള്ളു അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ സ്വകാര്യതപോലും പരിഗണിക്കാതെയാണ് എന്താണ് അവരേക്കുറിച്ച് എന്തെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ അവരേക്കുറിച്ച് എന്തറിയുന്നോ ഏറ്റവും ആദ്യം അത് എന്നാ മൊത്തം ലോകത്തെ മുഴുവൻ അറിയിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എത്രയും പെട്ടന്ന് അവർ അത് ലോകം മുഴുവനും അറിയിക്കുക എന്നുള്ളതാണ് അവരുടെ ചിന്ത ഇതിൽ മാധ്യമങ്ങളാണ് വാർത്ത വാർത്ത തരുന്നത് ഏറ്റവും കൂടുതൽ വരുമ്പോൾ മാധ്യമങ്ങൾ നല്ലെയൊരു പ്രധാന പങ്കു വഹിക്കുന്നുണ്ട് ഇന്നത്തെക്കാലത്ത് മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവരേക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിയുന്നത് പണ്ടു കാലത്തുള്ള പോസ്റ്ററുകളെ ഒക്കെയായലും കൂടുതൽ ഇന്നത്തെക്കാലത്ത് നമ്മൾ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതു വഴി നമ്മൾക്കത് കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നുണ്ട് ഈ ലോകത്ത് ഇൻറ്റർനെറ്റ് വന്നതിൽപ്പിന്നെ ഒരുപാട് ആരുടേയും സ്വകാര്യത പോലും മാനിക്കാതെയാണ് ഓരോ കാര്യങ്ങളും പുറത്ത് വരുന്നത് അത് സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ അവരെന്തു ചെയ്തോ അല്ലെങ്കിൽ അവർക്കൊരു വലിയൊരു ഫംഗ്ഷനുണ്ടായാൽ അതൊന്നും വരില്ല പക്ഷേ സെലിബ്രിറ്റീസ്സ് താരങ്ങളാവുമ്പോൾ അവരെന്തു ചെയ്യുന്നുവോ അവരുടെ ഒരു ഫംഗ്ഷനൊക്കെ വരുന്നതിന് കുറേക്കാലം മുമ്പേ അവരെത്ര ഒളിപ്പിച്ചു വെച്ചാലും അതെല്ലാം പുറത്തു വരും അതെങ്ങനെയെങ്കിലും ഒക്കെ അത് പുറത്ത് വരും ഒരാളുടെ കയ്യിൽ കിട്ടിയാൽമതി ലോകം മുഴുവൻ അറിയുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഏത് ഇന്നത്തെക്കാലത്ത് നമ്മുടെ ഇൻറ്റർനെറ്റ് വലിയ ഒരു പങ്കു വഹിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം എങ്ങനെയാണ് നമുക്ക് ഇത് സമൂഹത്തിലെത്തിക്കാം എങ്ങനെ എത്തിക്കണം ഇതൊക്കെയാണ് ഇവരുടെ ഒരു ചിന്താഗതി അത് വാർത്ത താരങ്ങളായാലും ഏത് സെലിബ്രിറ്റീസ്സാണെങ്കിലും ഏത് സെലിബ്രിറ്റീസ് അതുപോലെതന്നെ ഏതു മേഘലയിലുള്ള രാഷ്ട്രീയക്കാർ എന്തു കാര്യങ്ങൾ അവരെന്തു ചെയ്യുന്നു അവരടെ എല്ലാ കാര്യങ്ങളും നെഗറ്റീവ്സ് പോസിറ്റീവ്സ്സെല്ലാം നോട്ട് ചെയ്ത് അവരെയങ്ങ് ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെയങ്ങ് ആക്കുകയാണ് എല്ലാവരും അവരെയങ്ങ് ബുദ്ധിമുട്ടിയ്ക്കുകയാണ് അപ്പോൾ അവർ അവരുടെ സ്വകാര്യത മാനിക്കാതെയാണ് അത് എപ്പോഴും നമ്മൾ ആ ഓരോ മനുഷ്യർക്കും സ്വാതന്ത്ര്യമുണ്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ അവരുടെ സ്വകാര്യത നമ്മൾ തീർച്ഛയായും പരിഗണിക്കേണ്ടതാണ് അവരുടെ സ്വകാര്യത ഓരോ മനുഷ്യർക്കും എല്ലാവരും എന്നാ സ്വന്തമായിട്ട് നിലനിൽപ്പുള്ള മനുഷ്യരാണ് സ്വന്തമായിട്ടവർ നിലനിൽക്കണം അപ്പോൾ എല്ലാ കാര്യങ്ങളും അതുപോലെ നമ്മൾ നോക്കി വേണം ചെയ്യാൻ നമ്മൾ സ്വകാര്യത ആരുടെ ആയാലും സ്വകാര്യതയ്ക്കകത്ത് ഉള്ളിൽക്കയറാൻ ആർക്കും അവകാശമില്ല അപ്പോൾ ഈ ഇന്ത്യൻ പൗരനെ പൗരൻ എന്ന നിലയിൽ ആർക്കും മറ്റുള്ളവരുടെ സ്വകാര്യത സ്വകാര്യതയ്ക്കുള്ളിൽ കയറാനുള്ള അവകാശമില്ല പക്ഷെ നമ്മൾ അതൊന്നും ചിന്തിക്കാതെയാണ് ഈ മാധ്യമ മാധ്യമങ്ങളേ ഏതു മാധ്യമങ്ങളായാലും ഈ മാധ്യമങ്ങളെല്ലാം എന്നാ സെലിബ്രിറ്റീസിൻ്റെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനേക്കുറിച്ച് കൂടുതൽ ഈ പെട്ടന്ന് ആകുലരാകുകയാണ് എന്തു പെട്ടെന്ന് എന്തു പറയണം എന്തു ചെയ്യണം അതൊന്നും അറിയത്തില്ല ആ പക്ഷേ അവർ സ്വന്തം ജീവിതത്തിലും അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് മറ്റുള്ളവർ അറിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം ചിന്തിച്ചിട്ട് വേണം ഈ സ്വകാര്യമായ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിത് പുറത്തു വിടുമ്പോൾ പുറത്ത് വിടുമ്പോഴത് അറിയേണ്ടത് സാധാരണ മനുഷ്യരുടെയാണെങ്കിൽ ഒരു കാര്യവും അവരത് ജനിച്ചാലും അറിയുന്നില്ല മരിച്ചാലും അറിയുന്നില്ല ഒന്നും ആരും അറയുന്നില്ല പക്ഷെ ഇവരുടെയൊക്കെ കാര്യങ്ങള് വന്നാലൊര് ചെറിയൊരു ചെറിയൊരു ഫംഗ്ഷനോ ഒരിടത്തൊരു സ്ഥലത്തു നിന്ന് പോവുകയോ എന്തു ചെയ്താലും എന്തു വിഷയം വന്നാലും അതെല്ലാം അവരറിയുന്നു പലപ്പോഴും അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് പലതും പല കാര്യങ്ങൾക്ക് കൊണ്ടുപോയി കേസുവരെ കൊടുത്തിട്ടുണ്ട് പുറത്തു പറഞ്ഞതിനും പല യൂറ്റൂബേഴ്സ് പോലെയുള്ള ആൾക്കാർക്ക് എനിക്കിഷ്ടംപോലെ പണികൾ കിട്ടിയിട്ടുമുണ്ട് എങ്കിലും മനുഷ്യർ പഠിക്കത്തില്ല അത്രയാണെങ്കിലും സെലിബ്രിറ്റീസിൻ്റെ സ്വകാര്യതയിൽ നമ്മൾ ഇടപെടാൻ വേണ്ടി ഒരുപാട് അവരുടെ കാര്യങ്ങൾ പുറത്തുവിട്ടാലേ അവർക്ക് റീച്ച് കൂടുതൽ കിട്ടുകയുള്ളു അതാണ് ഒരു പരമാർത്ഥമായ കാര്യം നമ്മൾ എന്തേര് പുറത്തേക്ക് വിടുന്നത് അത്രയും നമ്മൾ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ആ റീച്ച് കിട്ടുമല്ലോ അവർക്ക് അതിൻ്റേതായ ബെനഫിറ്റുണ്ട് അതുകൊണ്ട് അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് അവരത് അത്രയും പെട്ടെന്ന് ഈ വാർത്തകളും പൊതു സമൂഹത്തിലേക്കെത്തിക്കാൻ വേണ്ടി അവർ മാക്സിമം പരിശ്രമിക്കും അങ്ങനെ പൊതു പൊതു കാര്യങ്ങളിൽ ഇടപെട്ട് സൊ വാർത്ത കാര്യങ്ങളുമായും എന്തുകൊണ്ടാണ് സ്വകാര്യത അതുകൊണ്ടാണ് അവർ സ്വകാര്യത പരിഗണിക്കാതെ അവർ ഇവരെന്തു ചെയ്യുന്നു അത്രയും സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് പൊതു ലോകമറിയുന്നവർ ആയതുകൊണ്ട് അവരേക്കുറിച്ച് പറഞ്ഞാലല്ലേ നാലാളറിയുള്ളു അപ്പോഴത് അങ്ങനെ അറിഞ്ഞയെങ്കിലേ അവർക്കതിനേ അതിനെക്കുറിച്ചുള്ള അവർ അവരെയേ സമൂഹത്തിൽ അറിയപ്പെടുകയുള്ളു അതാണ് മെയിൻ കാര്യങ്ങൾ അവരങ്ങനെ സമൂഹത്തിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് അവർ സമൂഹത്തിൽ അറിയപ്പെടണമെങ്കിൽ അയിൻ്റേതായ കാര്യങ്ങൾ ചെയ്യണം അതുകൊണ്ടാണ് അവർ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും അവരുടെ സ്വാകാര്യതപോലും മാനിക്കാതെ എന്തു കാര്യങ്ങളാണെങ്കിലും അവർ എത്രയും പെട്ടെന്ന് പബ്ലിസിറ്റി കൊടുക്കുന്നത് അതുകൊണ്ടാണ്